വിവിധ തരം കായിക മത്സരങ്ങൾ ഓരോ പ്രദേശത്തിൻ്റെയും ഐഡൻടിറ്റിയെ വെളിപ്പെടുത്തുന്ന തരത്തിൽ നമ്മൾ നടത്താറുണ്ട് ഞാൻ കബഡി കളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാ അതുപോലെത്തന്നെ വോളിബോള് കളിക്കും നമുക്ക് വലിയ താല്പര്യമായിരുന്നു കബഡിയോടും ക്രിക്കറ്റിനോടും നമുക്ക് നല്ല താല്പര്യമായിരുന്നു നമ്മൾ ഇവിടെ ആര്യങ്കാവെന്ന് പറയുന്ന പ്രദേശത്ത് ഡിസംബർ മാസത്തിൽ കൃത്യമായും ഒരു സാധാരണ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിൽ വോളിബോൾ ടൂർണമെൻറ്റ് തന്നെ ഇവിടെ നടത്താറുണ്ട് ആ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ കണ്ട് ഇതിൻ്റെ സംഘാടകരും അതിൻ്റെ കൂടെ നിൽക്കുന്നവരുമായ ജനങ്ങളെ എല്ലാവരെയും കണ്ട് എല്ലാവരുടെയും കയ്യിൽ നിന്ന് ചെറിയ തോതിലെങ്കിലും പത്തു രൂപയാണെ പത്ത് രൂപ നൂറുരൂപയാണെ നൂറ് രൂപ കണ്ടെത്തി ജനങ്ങളുടെ എല്ലാം ഒരു ഉത്സവമാക്കി മാറ്റി കൊണ്ട് വൈകുന്നേരം രാത്രി പന്ത്രണ്ട് മണിവരെ നല്ല ലൈറ്റ് എല്ലാം ഇട്ട് കൊണ്ട് നടത്തുന്ന വലിയ തോതിലുള്ള വോളിബോൾ ടൂർണമെൻറ്റ് എൻ്റെ നാടായ ഈ ആര്യങ്കാവിൽ നടത്താറുണ്ട് അതിൽ ചെറിയ ടീമൊന്നും അല്ല പങ്കെടുക്കുന്നത് രാജപാളയം മുതൽ അങ്ങോട്ട് തമിഴ്നാട്ടിലോട്ടും കേരളത്തിലുമുള്ള വൻകിട ടീമുകൾ വലിയ മത്സരം നടത്തി കൊണ്ട് പോകുന്നത് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ഒറ്റകെട്ടായി നിർത്തി കൊണ്ട് അവരുടെ ഐക്യം ഊട്ടി ഉറപ്പിച്ചു കൊണ്ട് അവരിൽ നിന്നെല്ലാം ചെറിയൊരു സംഭാവനകൾ കൂടി സ്വീകരിച്ചു കൊണ്ട് നടത്തുന്ന ഈ നാടിൻ്റെ ഒരു മാമാങ്കമായിട്ടാണ് ഈ കായിക മത്സരങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുള്ളത് കണ്ട് കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും യാഥാർഥ്യമാണ്